ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് നമ്മുടെ മാധ്യമങ്ങള് എന്നു പറയപ്പെടുന്നതു തികച്ചും ശരിയാണ് രാജ്യത്തിന്റെ പുരോ രാജ്യത്തിന്റെ പുരോഗതിയിൽ മാധ്യമങ്ങൾക്ക് അതിന്റേതായ അതു പ്രധാന്യമുണ്ട് കാരണം വിദ്യ ഉദാഹരണം വിദ്യാഭ്യാസ രംഗത്ത് വാര്ത്ത മാധ്യമങ്ങള്ക്കുള്ള പങ്കു വളരെ വലുതാണ് പാഠപുസ്തങ്ങള്ക്കുൾ പാഠപുസ്തകങ്ങളില് നിന്നു ലഭിക്കുന്ന അറിവിനേക്കാൾ പതിന്മടങ്ങ് അറിവ് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നും ഒക്കെ കിട്ടുന്നുണ്ട് ആ അറിവിന്റെ ആ അറിവ് ആ അറിവിന് നമ്മുടെ അല്ലെങ്കില് നമ്മിലേക്ക് എത്തിക്കുന്നതില് വളരെ വളരെ വലിയ പ്രാധാന്യം വാര്ത്താ വിനിമയ സാങ്കേതിക വിദ്യയ്ക്കുണ്ട് ലോകത്തും ലോകം മുഴുവന് നടക്കുന്ന കാര്യങ്ങള് നമുക്ക് വീട്ടിലിരുന്ന് അറിയാന് സാധിക്കുന്ന അറിയാന് സാധിക്കില്ല എന്നാല് പരിമിതികളെ മറി കട മറി കടന്നു ലോകം ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളും നമുക്ക് ഇന്ന് ഒരു ഒരു ഒരു മുറിയിലിരുന്ന് കൊണ്ടു നമുക്ക് അറിയാന് സാധിക്കുന്നു അത് തികച്ചും മാധ്യമങ്ങളിലൂടെ തന്നെയാണ് ഇന്നു മിക്ക മത്സര പരീക്ഷകളിലും ലോകത്ത് സംഭവിക്കുന്ന വാര്ത്തകളെ ആധാരികമാക്കി ചോദ്യങ്ങൾ വരാറുണ്ട് എന്നും ഉള്ള പത്ര പാരായണത്തിലൂടെയും വാര്ത്ത കേള്ക്കുന്നതിലൂടെയും മാത്രമാണ് നമുക്ക് നമ്മുടെ സമൂഹത്തില് നടക്കുന്ന കാര്യങ്ങള് കാര്യങ്ങളെ പറ്റി നമുക്ക് ബോധവാന്മാരാണ് ആകാന് കഴിയുന്നത് എങ്കിലേ തിന്മകളെ ഇല്ലാതാക്കാൻ കഴിയുന്ന ചാലക ശക്തികളായ ശക്തികളായി ഇന്നത്തെ സമൂഹത്തിലെ കുട്ടികൾക്കു മാറാൻ കഴിയും കുട്ടികൾക്കു മാത്രമല്ല മുതി മുതിര്ന്നവര്ക്കും കാരണം നമുക്കെ ഈ ലോകത്തു നടക്കുന്ന സംഭവങ്ങളെല്ലാം ഒരിക്കലും അവിടെ പോയി കാണുകയോ കേൾക്കുകയോ അല്ലെങ്കിൽ അതാത് സമയത്ത് അറിയാനോ കഴിയില്ല ഒരു പക്ഷെ പണ്ടൊക്കെ അടുത്ത ദിവസങ്ങളിലും അതിൻറ്റടുത്ത ദിവസങ്ങളിലും കിട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങള് ഇന്നു ലൈവായി തന്നെ നമ്മുടെ മുൻപില് എത്തുന്നുണ്ട് അതിനെല്ലാം അതിലെല്ലാം മാധ്യമങ്ങള്ക്കുള്ള പങ്കു വളരെ വലുതാണ് അതുകൊണ്ടു തന്നെ നല്ല പൗരന്മാരെ വാര്ത്തെടുക്കുന്നതു മുതല് നല്ല കുട്ടിക നല്ല കുട്ടികള് ഉണ്ടായാല് മാത്രമേ നമുക്കു നാളത്തെ നല്ല പൗരന്മാരെ വാര്ത്തെടുക്കാന് കഴിയൂ അതു കൊണ്ട് മാധ്യമങ്ങള്ക്ക് അതിന്റേതായ പ്രാധാന്യം ഉണ്ട് എന്നാണ് എന്റെ അഭിപ്രായം